വിനോദ സഞ്ചാരത്തിനായിട്ട് നമ്മൾ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എല്ലാവരും പോവുമല്ലോ അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വിവിധ രീതികളിലുള്ള വിവിധ അഭിപ്രായങ്ങളുള്ള ആളുകളുമായിട്ട് ഇടപഴകാൻ നമുക്ക് കഴിയുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അവരായിട്ടൊരു കൂട്ട് കൂടാനും അവരിൽ നിന്നും അവരുടെ ഓരോ അറിവുകൾ നമുക്ക് ലഭിക്കാൻ കഴിയും നമ്മളിൽ നിന്ന് അവർക്ക് നേടാൻ കഴിയും കൂടുതൽ കൂടുതൽ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ച് നമുക്കറിയാനും നമുക്ക് പോവാനും അവർ പോയ ഇടങ്ങളെ കുറിച്ച് നമൂക്ക് പറഞ്ഞ് തരാനും അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് കേട്ടറിയാനും കഴിയും അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അതിനിഷ്ടവും ആണ് നാമതിലൂടെ നമ്മുടെ അറിവുകൾ നമുക്ക് വികസിക്കാൻ കഴിയുന്നുണ്ട് തീർച്ചയായും അറിവ് വികസിക്കുക തന്നെ ചെയ്യും